ജ്യൂസ് ബ്ലെൻഡേഴ്സ് മൈക്രോവേവ് ഓവൻസ് എലക്ട്രിക് കെറ്റിൽസ് കോഫീ മെയ്ക്കേഴ്സ് എലക്ട്രിക് കുക്കിങ് സ്റ്റൗ എലക്ട്രിക് ഹീറ്റേഴ്സ് എലക്ട്രിക് കുക്ക് ടോപ്പ് ഇൻറ്റക്ഷൻ ഹീറ്റിംഗ് വാട്ടർ പ്യൂരിഫയ്യേഴ്സ് കൂളേഴ്സ് എലക്ട്രിക് കെറ്റില് എലക്ട്രിക് പ്ലെഷർ കുക്കറ് ജുസേഴ്സ് മിക്സെഴ്സ് സാൻവിച്ച് മെയിക്കേഴ്സ് എഗ്ഗ് ബോയ്ലേഴ്സ് റൈസ് കുക്കേഴ്സ് എയർ ഫൈയേഴ്സ് അങ്ങനെ ഒരുപാട് ഒരുപാട് എലക്ട്രോണിക് ഉപകരണങ്ങൾ നമ്മുടെ അടുക്കളയിൽ ഉണ്ടല്ലേ അപ്പം അത്തരം വീട്ടുപകരണങ്ങൾ പണ്ട്കാലത്ത് ലഭ്യമേ അല്ലായിരുന്നു നമുക്കതിനെപ്പറ്റി നല്ലോണം അറിയാം ഇപ്പം അന്ന് ഒക്കെ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിരുന്നതല്ലേ ഈ എലക്ട്രോണിക് ഉപകരണങ്ങൾ വന്നേപ്പിന്നെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കിച്ചണിലൊക്കെ നമുക്ക് കാണാം ഏറ്റവും മെയിനായിട്ട് വന്നൊരു മാറ്റം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈം സമയ ലാഭം അതാണ് എല്ലാ വീട്ടമ്മമാരെ സംബന്ധിച്ചും ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് ഉണ്ടായിരിക്കുന്ന ഒരുമാറ്റം ഇന്നത്തെ കാലത്തെ മാറ്റങ്ങളെപ്പറ്റി പറഞ്ഞാലല്ലേ നമുക്ക് പഴയകാലത്ത് ഉണ്ടായിരുന്ന അനുഭവങ്ങളെപ്പറ്റി പറയാൻ കഴിയൂ ഏറ്റവും മെയിനായിട്ട് നമുക്കൊരു എക്സാംപിള് പറയാണേൽ മിക്സി മിക്സിയെന്ന് പറയുന്നത് സാധാരണക്കാരുടെ ഒരു ജീവിതത്തെ ഇന്നത്തെ കാലത്ത് ആരുടേയും ഒരു കിച്ചണിൽ ഇല്ലാതെ വരുന്ന ഒരു അല്ലെങ്കിൽ ഏറ്റോം കൂടുതൽ കാണപ്പെടുന്ന ഒരുപകരണം അല്ലേ മിക്സി അല്ലെങ്കിൽ ഗ്രയിൻഡർ ഗ്യാസ് സിലിണ്ടെർ ഓവൻ പോലുള്ള ഉപകരണങ്ങൾ പണ്ട്കാലത്ത് ആട്ടുകല്ലേൽ അല്ലെങ്കിൽ അമ്മിക്കല്ലിൽ ആയിരുന്നല്ലേ അരച്ചോണ്ടിരുന്നത് അത് നമ്മുടെ ഹെൽത്തിനെ നന്നായിട്ട് ബാധിച്ചിരുന്നൊരു കാര്യമാണ് അത്യാവശ്യം പ്രായമായ ഒരാൾക്ക് ഈ ആട്ടുകല്ലിൽ അല്ലെങ്കിൽ അമ്മിക്കല്ലിൽ അരയ്ക്കുക അല്ലെങ്കിൽ ഉരലിലിട്ട് ഇടിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടായൊരു കാര്യമായിരുന്നു അപ്പം അന്നത്തെക്കാലത്ത് അതൊക്കെ ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും തന്നെ ഇല്ലായിരുന്നു അപ്പെന്താ മറ്റുവീട്ടുകളിൽ പോയിവേണം അല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അങ്ങനെ മറ്റുള്ളവരെ സമീപിക്കുക സമയം നഷ്ടം അതുപോലെ തന്നെ ആരോഗ്യപ്രശ്നങ്ങൾ ചെയ്യാനുള്ള താൽപ്പര്യക്കുറവ് സാഹചര്യങ്ങൾ അനുവദിക്കാതിരിക്കുക അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുബം ചെയ്യാൻ കഴിയാതെ വരുക അങ്ങനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ആ സമയത്തൊക്കെ അനുഭവിച്ചോണ്ടിരുന്നു അല്ലെ പിന്നെ നമ്മുടെ ഇപ്പം കെറ്റിലിനെപ്പറ്റി പറയാണെങ്കിൽ നമുക്ക് വെള്ളം ചൂടാക്കാൻ വിത്തിൻ സെക്കൻഡ്സ് സ്വിച്ചിട്ട് ഒരു സ്വിച്ച് ഒരു എലെക്ട്രോൺ ഡിവൈസിലോട്ട് കൊടുക്കുന്നു ഒരു സ്വിച്ചിടുന്നു അത്രോം കാര്യങ്ങൾ മതി നമുക്ക് അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പക്ഷേ നേരത്തേയെന്ന് വെച്ചാൽ എന്താണ് നമ്മളെന്താ അടുപ്പിൽ പോയി വിറക് കമ്പുകൾ പോയി സെർച്ച് ചെയ്തോണ്ട് വരുന്നു അടുപ്പിൽ വെയ്ക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കഷ്ട്ടപെട്ട് എന്താ തീ കത്തിക്കുന്നു അതിന് അതുമൂലം ഉണ്ടാവുന്ന പുകകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ പിന്നെ ആ വെള്ളമൊന്ന് തിളച്ചു വരണെങ്കിലോ ഒരു പത്തിരുപത് തവണ നമ്മൾ ആ അടുപ്പിൽ ഊതി ഊതി തീകത്തിക്കേണ്ട വരുന്നു പക്ഷേ ഇന്നെന്താണ് ജെസ്റ്റൊരു കെറ്റിൽല് സ്വിച്ച് ഓൺ ചെയ്യുന്നു നമുക്ക് വെള്ളമിതാ നിമിഷങ്ങൾക്കുള്ളിൽ തിളച്ചു വരുന്നു അങ്ങനെയൊരു പ്രതിഭാസമല്ലേ നമ്മളിപ്പോൾ കാണപ്പെടുന്നത് പിന്നെ വരുന്നതാണ് ഇൻറ്റക്ഷൻ കുക്കർ ഗ്യാസ് സിലണ്ടർ പണ്ട് നമ്മൾ പറഞ്ഞു മിറ്റത്ത് അടുപ്പില്ലാത്തവരൊക്കെ എന്നാണ് കല്ലു കൂട്ട് ആ അടുപ്പ് കെട്ടുന്നൊരു ആ ഒരു സാഹചര്യം നമ്മൾ പണ്ട്കാലത്ത് ഒത്തിരി അനുഭവപ്പെട്ടിരുന്നു അപ്പം അതിലേന്നൊക്കെ മാറി ഗ്യാസ് സിലിണ്ടർ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഗ്യാസ് സിലിണ്ടർ വരുന്നൊരു പ്രതിഭാസം ത്തിലേക്ക് നമ്മുടെ നാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു പിന്നെന്താണ് ഇൻറ്റെക്ഷൻ കുക്കർ ഇൻറ്റെക്ഷൻ കുക്കർ വളരെയേറെ ഉപകാരപ്പെട്ട ഒരു സംഭവാണിന്ന് അതുപോലന്നെ റൈസ് കുക്കർ റൈസ് കുക്കറൊക്കെ വളരെ ഹെൽപ്പിംങ്ങായിട്ടുള്ളൊരു സംഭവമാണ് രാവിലെ നമ്മൾ ഇപ്പം എന്താ ഓഫീസ് ജോലിക്ക് പോകുന്നവർ സ്കൂളിൽ പോകുന്നവർ അങ്ങനെയൊക്കെ കുട്ടികളെ നമുക്ക് ഒരുപാട് ഇതൊക്ക സഹായിക്കാൻ കഴിയും പണ്ട് കാലത്ത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ലാത്ത ടൈമിൽ അവർ ഒത്തിരി കഷ്ടപ്പെടുന്നു അതിരാവിലെ എഴുന്നേൽക്കാൻ അവർ കമ്പിൾക്കായി തപ്പിനടക്കാൻ അങ്ങുമിങ്ങും ഒക്കെപോയി എല്ലാം സർച്ച് ചെയ്ത് പോവാൻ അങ്ങനുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ഫെയ്സ് ചെയ്യേണ്ട വന്നിരിക്കുന്നു അപ്പോൾ അതിൽ നിന്നൊക്ക ഒരുപാട് നമുക്ക് നല്ല മാറ്റങ്ങൾ ഇതൊക്ക വന്നതോടുകൂടി സാധിക്കുന്നു